വിനോദ സഞ്ചാരികൾ സഞ്ചരിക്ക അതായത് സഞ്ച സന്ദർശിച്ചിരിക്കേണ്ട ഏതെങ്കിലും പ്രശസ്ത മാർക്കറ്റുകളോ ഷോപ്പിംഗ് കേന്ദ്രങ്ങളോ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ട് അതായത് നമുക്ക് കോഴിക്കോട് മുട്ടായി തെരുവ് അവിടെ ഒക്കെ വിനോദ സഞ്ചാരികൾ സഞ്ചാരികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് എറണാകുളത്ത് ഉള്ള ലുലു മാൾ ലുലു ഹൈപ്പർ മാൾ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളില്ലേ അതൊക്കെ അവർക്ക് അതായത് സന്ദർശിക്കാൻ നല്ലൊരു വൈബ് ആയിരിക്കും ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സർവ്വ മാർക്കറ്റ് തിരുവനന്തപുരത്തുള്ള സർവ മാർക്കറ്റ് പിന്നെ തിരുവനന്തപുരത്തു തന്നെ കന്യാകുമാരി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടാകും പിന്നെ മെയിൻ ആയിട്ട് കോഴിക്കോട് ഉള്ള ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ നല്ലവണ്ണം പിന്നെ ഇതാക്കാൻ പറ്റും അതായത് അവർക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതായത് ഇപ്പം കോഴിക്കോട് ഒക്കെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അതായത് ബിരിയാണിക്കായിട്ടുള്ള ഓരോ സെൻറ്ററുകൾ അങ്ങനെ ഉള്ള പല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും